ആ അതെയല്ലൊ പറയൂ ആ അതെ അതെ പറഞ്ഞോളൂ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയ്ക്ക് ആണ് കൊടുക്കുന്നത് മേഡം അതു ചിലപ്പം ഹോം മെയ്ഡ് ആയിരിക്കില്ല നമ്മളിവിടെ ഹോം മെയ്ഡ് ആണ് ഇത് ഫുൾ അതുപോലെത്തന്നെ അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട് തലയിൽ വയ്ക്കാനും അതുപോലത്തന്നെ ഫുഡ്ഡ് ഐറ്റംസ് ഉണ്ടാക്കാനും എല്ലാത്തിനും ഉപയോഗപ്രദം ആണ് അപ്പം കുട്ടികൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് തലയിൽ തേച്ചു കൊടുക്കാം അതായത് ഫുഡ്ഡ് കൊടുക്കുന്നതിനും കുട്ടികൾക്ക് കുഴപ്പം ഇല്ല ഒരു കുഴപ്പവും വരില്ല അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിന് പുറത്തുനിന്ന് മേടിക്കുമ്പം നമുക്ക് ഹോം മെയ്ഡ് ആയിരിക്കില്ല ആവണമെന്നും ഇല്ല അതിൻ്റെതായ സൈഡ് എഫക്ഷൻസും വരാം അപ്പം അതിന് മുടി കൊഴിച്ചലൊന്നും ഉണ്ടാവില്ല മേഡം മുടി വളരാൻ സഹായിക്കും മുടിക്ക് ഒരു ഡാമേജും ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു എണ്ണയാണ് ഇത് ആ മേഡം നല്ല റിവ്യു ആണ് നമ്മുടെ എണ്ണയ്ക്ക് വന്നിട്ടുള്ളത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല മേഡം ആ ഫുഡ്ഡ് പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയാണ് വേറെ ഞങ്ങളിങ്ങനെ ഇവിടെ നിന്ന് ആൾക്കാർ മേടിച്ചിട്ട് പോയിട്ട് നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇത് വരെ ഒരു മോശം അഭിപ്രായം നമ്മൾക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ എണ്ണയ്ക്ക് അതുകൊണ്ടുതന്നെ ഒത്തിരി ആൾക്കാർ ഇവിടെ നിന്ന് മേടിക്കാനും ഇതിനെ ഇതു മേടിക്കാൻ ആയിട്ട് മാത്രമായിട്ട് ഇവിടെ ഇവിടെ വരുന്നവരുണ്ട് ആ ഇത് ഹോം മെയ്ഡ് ആണ് മേഡം നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് നമ്മൾ പറയുന്നത് പക്ഷെ നമുക്ക് ഇപ്പം ഒരു പത്തു ലിറ്ററിന് മേലേയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഡിസ്ക്കൗണ്ട്സിന് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ ഹോം ഡെലിവറി ഉണ്ട് മേഡം നിങ്ങൾ വേണമെങ്കിൽ നമ്മൾ ഹോം ഡെലിവറി ചെയ്തു തരും അപ്പം അതിൻ്റെതായ ചെറിയൊരു ക്യാഷ് ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് ഏതാണ് സൗകര്യമെന്നു വച്ചാൽ നമ്മൾക്ക് അതുപോലെ ചെയ്യാം നിങ്ങൾക്ക് ഇപ്പം അത് നമ്മൾക്ക് എന്താ പറയുക ആ എത്ര ദൂരം വരും അതിന് അനുസരിച്ചാണ് നമ്മൾ ക്യാഷ് ഇതാക്കുന്നത് അപ്പോൾ നിങ്ങളെ പ്ലേസിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് അനുസരിച്ച് ഇരിക്കും അതിൻ്റെ ക്യാഷ് ഒക്കെ ആ നിങ്ങൾക്ക് ഇപ്പം എത്രയാണ് ഉദ്ദേശിക്കുന്നത് എത്ര എണ്ണം വേണം അഞ്ച് ലിറ്റർ എടുത്താൽ ആ അതിൻ്റെതായ ഒരു ഡിസ്ക്കൗണ്ട് ഞങ്ങൾ തരും മേഡം നിങ്ങൾ ഇവിടെ വന്ന് എടുക്കുകയാണോ അതോ ഇനി ഹോം ഡെലിവറി ചെയ്യണോ മേഡം ആ ഓക്കെ ഓക്കെ എന്നത്തേയ്ക്ക് എന്നത്തേയ്ക്ക് ആണ് വേണ്ടത് ഓക്കെ ലൈവ് ലൊക്കേഷൻ ഇട്ടാൽമതി നമ്മൾ എത്തിച്ചു തരാം ആ ഫുഡ്ഡിന് ഒക്കെ നല്ലതാണ് മേഡം നിങ്ങൾ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറഞ്ഞാൽ മതി അതെ അതെ മേഡം ആ ഓക്കെ മേഡം എന്നാൽ ശരി